കഥകളിയില് മെയിനായിട്ടു വരുന്നതെന്നുവച്ചുകഴിഞ്ഞാല് പച്ച കത്തി കരി മിനുക്ക് അങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ വച്ചിട്ടാണ് കഥകളി അത് ഇങ്ങോട്ടൊന്നുമില്ല ഞാൻ വയനാട് ജില്ലയാണ് വയനാട്ടിലേക്കൊന്നുമില്ല പിന്നെ ആലപ്പുഴ ആ സൈഡൊക്കെ പോവുകയാണെങ്കില് നമ്മുടെ ഈ ഹൗസ് ബോട്ടുകളില്ലേ ഹൗസ് ബോട്ടുകളിലൊക്കെ അത് സ്ഥിരം കാഴ്ചയാണ് അവിടേക്കൊക്കെ സ്ഥിരം കാഴ്ചയാണ് ഫോറിനേഴ്സ് ടൂറിസ്റ്റുകളെല്ലാം പോയി കാണലൊക്കെ ഇണ്ട് കഥകളി കണ്ടിരിക്കാന് നല്ല രസമാണ് അതുകൊണ്ടാണ് ടൂറിസ്റ്റുകളൊക്കെ എപ്പോഴും ഈ ആലപ്പുഴ സൈഡിലൊക്കെ എപ്പോഴും ഹൗസ് ബോട്ടൊക്കെ എന്നും ഫുള്ളായിരിക്കും ഒരു ദിവസം പോലും ആളില്ലാണ്ടിരിക്കൂല അവിടെ കഥകളിയാണ് മെയിനായിട്ടുള്ളത് അവിടെ എന്നും കഥകളിയുണ്ടാവും അവിടുത്തെ സ്ഥിരം ഇതാണ് അത് ഇവിടേക്കൊന്നും അങ്ങനെയില്ല ഇവിടെ വയനാട് ജില്ലയിൽ ഞാൻ ഇതുവരെ കഥകളി കണ്ടിട്ടില്ല പിന്നെ എന്നു വച്ചുകഴിഞ്ഞാല് ഈ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ കഥകളി കളിച്ചാലായി പിന്നെ അമ്പലത്തില് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ കാണാൻ പറ്റിയാലേ ഉള്ളു ഇങ്ങനെ അമ്പലത്തിലെ ഉത്സവങ്ങളിലൊക്കെ ചില ചില ഉത്സവങ്ങളിലൊക്കെ ഉണ്ടാവും